എൻ്റെ പാചക രീതിയുടെ പ്രേത്യേകമായ വിഭവങ്ങളെന്നു പറയാനായിട്ട് കൂടുതലും ഉരുളക്കിഴങ്ങുകൊണ്ടുള്ള കറികൾ അത് മിക്കവാറും പല രീതികളിലായിരിക്കും എൻ്റെതായ ഇഷ്ടത്തിനായിരിക്കും അതിൽ കൂടുതലും മസാലകൾ വ്യത്യസ്തപ്പെട്ടു വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ തേങ്ങയും ഉപയോഗിക്കും പഞ്ചസാര അതിനകത്തു വരുന്നില്ല തേങ്ങയും മസാലകൾ ആയിരിക്കും അതിനകത്ത് കൂടുതലും ചേർന്നു വരുന്നത്